ഞാൻ ഏറ്റവും കൂടുതൽ തുന്നുന്നത് സത്യം പറഞ്ഞാൽ ബട്ടൺസ്സാണ് ഭർത്താവിന്റെ ഷർട്ടിന്റെ ബട്ടൺസ്സ് തയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കീറിപ്പോയ സാധനങ്ങൾ തയ്ക്കുക എന്നുള്ളതാണ് തുന്നുന്നതിൽ കൂടുതൽ മികവ് വരുത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴും അത് സാധിക്കാറില്ല അതിനുള്ള ക്ഷമയില്ല അതുകൊണ്ടായിരിക്കണം എങ്കിലും കൂടുതൽ തുന്നൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പലതരത്തിലുള്ള മെഷീനുകൾ ഇപ്പോഴുണ്ട് തയ്യൽ മെഷീനുകൾ പ്രത്യേകിച്ചും കൈകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ തയ്യൽ മെഷീനുകളുണ്ട് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അതുപയോഗിച്ചു ചെയ്യാനും എമ്പ്രോയ്ഡറി ചെയ്തു പഠിക്കാനുമൊക്കെ ആഗ്രഹമുണ്ട് അത് പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു ക്ലാസ്സ് അറ്റൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് മേടിച്ച എമ്പ്രോയ്ഡറി കൈ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സൂചി വച്ചു ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത്രകണ്ട് വിജയിച്ചിട്ടില്ല എങ്കിലും കൂടുതൽ അതിലോട്ട് ശ്രദ്ധ പരത്തണമെന്ന് ആഗ്രഹിക്കുന്നു വളരെ ബേസിക്കായിട്ടുള്ള തയ്യലുകളാണ് ഇപ്പോൾ ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്നത് ചെറിയ പിഞ്ചിപ്പോയത് ഒക്കെ തയ്ക്കുക ചെറിയ രീതിയിലുള്ള റിപ്പേറ് വർക്കുകൾ ചെയ്യൂ അങ്ങനെയൊക്കെയാണ് തയ്ക്കുന്നത് കൂടുതൽ അതിനെ കുറിച്ചു അറിയുന്നതിനും ചെയ്യുന്നതിനും ആഗ്രഹമുണ്ട് എന്റെ മകൾ നല്ല രീതിയിൽ തയ്ക്കും അതിൽ ഒരു നല്ല കഴിവുണ്ട് തുന്നലിൽ കൂട്തല് അറിവുണ്ടാകുന്നതിന് വേണ്ടി യൂട്യൂബിൽ വീഡിയോകളൊക്കെ കാണാറുണ്ട് അത് അനുകരിക്കാനും ശ്രമിക്കാറുണ്ട് വലിയ വിജയം കണ്ടില്ലെങ്കിലും അതിൽ ഒരു ശ്രമം നടത്താനായിട്ടാണ് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്